ഹലോ നമസ്കാരം വൈദ്യുതി ബോഡിന്റെ ഉപഭോക്തൃ സേവനമല്ലേ എൻറ്റേ വീട് വൃത്തിയാക്കുന്ന സമയത്തും എന്റെ പേപ്പർ വർക്കുകൾ ക്രമീകരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ മാസത്തെ എന്റെ വൈദ്യുതി ബിൽ അബദ്ധത്തിൽ വലിച്ചെറിഞ്ഞതായി ഞാൻ മനസിലാക്കുന്നു അതിനാൽ എനിക്കീ മാസത്തെ വൈദ്യുതി അടക്കാനായി എന്റെ കൈവശം ബില് ഇല്ല അതിനായി എനിക്കൊരു ഡൂപ്ലിക്കേറ്റ് ബില് തരുന്നതിനെ പറ്റിയിട്ട് കാര്യങ്ങളന്വേഷിക്കുന്നതിനായാണ് ഞാൻ വിളിക്കുന്നത് നിലവിലെ മാസത്തെ എന്റെ വൈദ്യുതി ബില്ലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് താഴെ പറയുന്ന വിലാസത്തിൽ ഒന്ന് മെയില് ചെയ്യാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്റെ വിലാസം ശ്രീഭവൻ ശ്രീവരാഹം

തുടർന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ദയവായി എന്നെ വിളിച്ചറിയിക്കേണ്ടതാണ് ഇനി ഈ തെറ്റ് പറ്റാതെ ഞാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും നന്ദി